ഹലോ ബിന്ദു അല്ലേ ആ പിന്നെ ഇല്ലേണേ എനിക്ക് ഇല്ലേ ഒന്ന് ടൗണിൽ പോവണമായിരുന്നു നീ വരുമോ ഒന്നിച്ച് സാരമില്ല സാരമില്ല ഒരു ഔട്ടിംഗ് അതിന് എന്താന്നറിയോ എനിക്ക് ഇല്ലേ കുറച്ച് ജ്വല്ലറിയിൽ ഒന്ന് പോവണമായിരുന്നു ഇപ്പോൾ ഒരു പൊന്ന് എന്തെങ്കിലും കുറച്ച് എടുക്കാം പറഞ്ഞിട്ട് ആ അത് തന്നെ പ്പ എവിടെ എവിടെ പോവണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിന് ബിന്ദുലോ ആ നിൻ്റെ പേര് പറഞ്ഞാൽ കൺസെഷൻ എല്ലാം ഉണ്ടോ അവിടെ അവിടെ എങ്ങനെ നല്ല ഉണ്ടോ സെലക്ഷൻ എല്ലാം എങ്ങനെ അതെയാ ആ ആ ആ അതെ അങ്ങനെ നോക്കാമായിരുന്നില്ലേ അവിടെ എങ്ങനെ ഡിസൈൻ എല്ലാം ഉണ്ടോ നല്ല നല്ല ആ അല്ലേ ആ അതെയാ വള വള എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ നല്ല ആ പക്ഷെ എനിക്ക് ആ കല്ലിൽ എനിക്ക് ആൻറ്റിക് ഗോൾഡ് എടുക്കണമെന്നു തോന്നുന്നു പക്ഷെ അയിൻറ്റാത്ത് ഭയങ്കര റേറ്റ് ആയില്ലേ

ആ അതെ അല്ലേ പിന്നെ ഇപ്പോൾ പൊന്നിൻ്റെ പൈസ മാത്രം നോക്കിയിട്ട് കാര്യം ഇല്ല അതിൻ്റെ പണിക്കൂലി തേയ്മാനം അത് ഇത് എല്ലാം കൊടുത്താൽ കുറേ ആവൂലേ ആ അപ്പോൾ അപ്പോൾ എനിക്ക് പരിചയം ഉള്ള ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കുറച്ച് കുറഞ്ഞ്

കുറച്ച് തരും അല്ലേ ഒരു നാല് നാലര ആവുമ്പോൾ ഞാൻ അവിടെ എത്താം നീ അത് അല്ല നീ വരുമോ അപ്പോഴേക്കും നിൻ്റെ പണി എല്ലാം ആവുമോ എല്ലാം

ആ നീ വന്നാൽ ഞാൻ ഐസ് ക്രീം വാങ്ങിച്ച് തരാം പേടിക്കേണ്ട എൻ്റെ ചിലവിൽ വാങ്ങിച്ച് തരാം നീ കഴിയുന്ന അത്ര അവിടെ പറഞ്ഞിട്ട് നമ്മൾക്ക് നല്ല ഡിസ്കൗണ്ട് ആക്കി തന്നിട്ട് എല്ലാം നല്ല നല്ലയിൽ എല്ലാം ആക്കിയിട്ട് തന്നാൽ മതി ഒക്കെ വന്നിട്ട് ആ ആ അത് ശരി തന്നെ നീ പിന്നെ അവിടെ സ്കീമിന് കൂടീനാണേ ഇല്ലേ അതെ ഞാൻ അങ്ങനെ സ്കീമിൽ പോലും ഇല്ല അപ്പോൾ അതിലൊന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് പറയാൻ ആയി ടൈമ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ